എന്നെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ നേട്ടം എന്താണെന്ന് ചോദിച്ചാല് ഞാന് നല്ല ഒരു അമ്മയാണ് ഞാന് നല്ല ഒരു ഭാര്യയാണ് ഞാന് നല്ല ഒരു മകളാണ് അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും അഭികരമാ അഭിമാനകരമായ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞാൻ ഒരു അമ്മ നല്ലൊരു അമ്മയായതിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം എന്റെ മക്കളുടെ പഠനത്തിലെ കാര്യങ്ങളിലാണെങ്കിലും അവരുടെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും അവരെ നല്ല വ്യക്തിത്ത്വത്തിന് ഉടമകൾ ആക്കുവാനാണെങ്കിലും ഞാന് നല്ല രീതിയിൽ തന്നെ അവരുടെ വ്യക്തിത്വ വളര്ച്ചക്കും പഠന കാര്യങ്ങളിലൊക്കെ ഞാന് ശ്രദ്ധിക്കാറുണ്ട് അതേപോലെ മക്കളാണെങ്കിലും സ്കൂളിലൊക്കെ നല്ല ടോപ്പാണ് എല്ലാ കാര്യങ്ങളും പഠിക്കാനുമൊക്കെ അപ്പം അവര്ക്ക് സ്കോളര്ഷിപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഞാന് തന്നെയാണ് അവരെ പഠിപ്പിക്കുന്നതും അവരുടെ കലാപരമായ കാര്യങ്ങളാണെങ്കിലും പാട്ട് പഠിപ്പിക്കൽ ഡാന്സ്സ് പഠിപ്പിക്കൽ എല്ലാം ഞാന് തന്നെയാണ് ചെയ്യുന്നത് അപ്പം സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ജുലീനയുടെ മമ്മിയാണ് വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവര്ക്കും ഒരു ഇതാണ് കാരണം അവളും സ്കൂളില് നല്ല ആക്റ്റീവാണ് അപ്പം സ്കൂളിലൊക്കെ പോവുമ്പം എനിക്കതിൻ്റേതായ ഒരു ക്രെഡിറ്റ് കിട്ടാറുണ്ട് അപ്പം മോളെ ആരാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ ടീച്ചേഴ്സ്സ് ചോദിക്കുമ്പോൾ അമ്മയാണ് പഠിപ്പിക്കുന്നത് എന്നു പറയുമ്പം ആ അമ്മ നല്ല ഗുഡ്ഡാണല്ലൊ എല്ലാം കാര്യങ്ങളിലും മകളെ പ്രൊജെക്റ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഞാന് സഹായിക്കാറുണ്ട് അപ്പം അവിടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ രോഗാവസ്ഥയിലാണെങ്കിലും എല്ലാം ഞാന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതിൽ ഞാൻ നല്ലൊരു അമ്മയാണ് എന്നതില് ഞാന് അഭിമാനിക്കുന്നു അതേ പോലെ തന്നെ നല്ല ഒ ഭാര്യയാണ് ഞാന് എന്റെ ഭര്ത്താവിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാന് നല്ല ഭംഗിയായിട്ട് ചെയ്യാറുണ്ട് എല്ലാം ഒരു കാര്യങ്ങൾ പോലും എല്ലാ കാര്യങ്ങളിലും ഭാര്യയുടേ ഹെല്പ് ചോദിക്കുന്ന ഒരാളാണ് എന്റെ ഭര്ത്താവ് അപ്പം അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും ഞാന് നല്ല ഭംഗിയായിട്ട് ചെയ്ത് തീര്ക്കാറുണ്ട് അതേപോലെ ഞാന് നല്ല ഒരു മകളാണെന്ന് പറയാന് കാരണം എന്ന് ചോദിച്ചാൽ എൻ്റെ അപ്പനും അമ്മയും എന്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പം അവരുടെ കാര്യങ്ങളും ഞാന് തന്നെയാണ് നോക്കുന്നത് അവരുടെ രോഗാവസ്ഥയിൽ അവരെ പരിചരിക്കാനും അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനും അവരെ പെട്ടെന്ന് അവരുടെ എന്ത് ഹെല്പ് വേണമെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് ഞാന് ചെയ്യാറുണ്ട് എന്ന ഒരു മകൾ എന്നൊരു നിലയിൽ ഞാൻ എന്റെ എല്ലാ കര്ത്തവ്യങ്ങളും നല്ല രീതിയില് ചെയ്യുന്നു അപ്പം അതുകൊണ്ട് എനിക്കേറ്റവും അബിമാനകരമായ നേട്ടം എന്നു പറഞ്ഞാല് ഞാന് നല്ല ഒരു അമ്മയാണ് ഞാന് നല്ല ഒരു ഭാര്യയാണ് ഞാന് നല്ല ഒരു മകളാണ് എന്നതില് ഞാന് അഭിമാനിക്കുന്നു